അപ്പോൾ ഗ്രാമങ്ങളിൽ ഒക്കെയാണെങ്കിൽ അധ്യാപകരെപ്പറ്റി പറയുവാണെങ്കിൽ ഗ്രാമങ്ങളിലുള്ളവർ പൊതുവെ ഡ്രസ്സിങ്ങ് സ്റ്റൈലിൽ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടാവും ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെയാണെങ്കിൽ അധ്യാപകർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ് പറയുക വസ്ത്രധാരണ രീതി തന്നെ വ്യത്യാസമാണ് അവർ ഷർട്ടും മുണ്ടും ഒക്കെയാണ് കൂടുതലായും യൂസ് ചെയ്യുക എന്നാൽ ഇപ്പോൾ നഗരങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ അധ്യാപകർ യൂസ് ചെയ്യുന്നത് ഈ ഷർട്ട് മുണ്ട് മുണ്ടിനുപകരം എന്താണ് പറയുക പാൻറ് ഒക്കെയാണ് യൂസ് ചെയ്യുക പിന്നെ അവരുടെ സംസ്കാരരീതികൾ തന്നെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്താണ് പറയുക ഒരു ഗ്രാമപ്രദേശത്ത് പഠിപ്പിക്കുന്ന സാറമ്മാർ ആണെങ്കിൽ അവർക്ക് എന്താണ് പറയുക സംസ്കാരരീതിയിൽ അതിൻറേതായ മലയാളം എല്ലാ രീതിയിലുള്ള ഇതും പറഞ്ഞുകൊടുത്ത് അർത്ഥം വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കും എന്നാൽ ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഒക്കെയാണെങ്കിൽ അവർ കൂടുതൽ യൂസ് ചെയ്യുക എന്താണ് പറയുക ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാങ്ക്വേജുകൾ ആയിരിക്കും അപ്പോൾ അവർക്ക് എന്താണ് പറയുക കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കാനുള്ള ഒരു അറിവൊന്നും അധ്യാപകർക്ക് ഉണ്ടായിക്കോണമെന്നില്ല നഗരങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് പറയുക ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രാമങ്ങൾ തന്നെയാണ് ഗ്രാമപ്രദേശത്തിലുള്ള അധ്യാപകരായിരിക്കും കൂടുതൽ എന്താണ് പറയുക കുട്ടികളോട് എന്താണ് പറയുക കൂടുതലും എന്താണ് പറയുക ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള അധ്യാപകർക്ക് ആയിരിക്കും എന്നാണ് എൻറെയൊരു നിഗമനം